വാർത്തയിൽ കാണിക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഓരോ ചാനലുകാരും അവരുടെ വാർത്തകൾ കൂടുതൽ പെരുപ്പിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പക്ഷേ അത്രത്തോളം ഒന്നും നമ്മുടെ സംഭവസ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടില്ല നമുക്ക് മനസ്സിലാവും അതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം അത് സമൂഹത്തെ വളരെയധികം അതായത് ഒരു കേസ് എടുത്ത് അവരുടെ അവർക്ക് സംഭവിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ആ അവരെ മറ്റുള്ളവർ കാണുന്നത് വളരെ മോശമായിട്ടായിരിക്കാം ഒത്തിരി എന്നാ പരിഹസിക്കുന്ന രീതിയിലായിരിക്കും പല വിധത്തിലും അവരെ അത് ബാധിക്കും അവരുടെ പ്രവർത്തനത്തെ ബാധിക്കും അവരുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കും അതെല്ലാം ആ സമൂഹത്തിന് ഒത്തിരി അപകടം സൃഷ്ടിക്കാറുണ്ട്